നമസ്ക്കാരം ഞാൻ അശോക് കേരളം കലാപരമായ അനവധി സംസ്ക്കാരങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ അനവധി കലകൾ ലോകപ്രശസ്തമാണ് ഉദാഹരണത്തിന് കേരളത്തിലെ നെയ്ത്തുശാലകളൊക്കെ വളരെയധികം അധികം ലോകപ്രശസ്തിയുള്ളതും ആരാധകരുള്ള ഉള്ളവയും ആണ് ക്ക് ഇപ്പോൾ വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചു നമുക്കറിയാം എന്നാൽ ഇ ഇ കേരളത്തിലെ പല പല സംസ്കാരം സ കലകളും ഇപ്പോൾ വളർന്നു വരുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അവരുടെ അവരുടെ വളർച്ചക്ക് ഗുണകരമാകുന്ന രീതിയിലുപയോഗിക്കുന്നതായി നമുക്ക് കാണാം ഉദാഹരണത്തിന് ഞാൻ മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞ നെയ്യ്ത്തുശാലകൾ തന്നെ പണ്ട് ചർക്കയിൽ നിന്നും നെയ്യ്ത നൂലുകൊണ്ട് നെയ്യ്തിരുന്ന തുണികൾ ഇപ്പോൾ സു എല്ലാം ഓട്ടോമേറ്റഡ് ആക്കി ആക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഇങ്ങനെ അനവധി നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്